ബൈക്ക് ഓടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുൻപു തന്നെ നമ്മൾ ആദ്യം ഹെൽമെറ്റ് വെയ്ക്കണം ഹെൽമെറ്റ് വെയ്ക്കണം പിന്നെ നമുക്ക് പേ ഇത് കി സ്റ്റാ ഇടുമ്പോൾ ഇട്ട് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പെട്രോൾ ഉണ്ടോ എന്നു പരിശോധിക്കണം അതു കഴിഞ്ഞ് നമ്മൾ സ്റ്റാൻഡ് ത ത് തട്ടണം സ്റ്റാൻഡ് പിറകോ തട്ടി തട്ടി വെയ്ക്കണം അത് പി പിറകോട്ട് എടുത്തതിനുശേഷം ന മി മിററിൽ കൂടി വ്യൂ മിററിൽ കൂടി ബാക്ക് രണ്ടുസൈഡും ക ശരിയാക്കണം മിറർ രണ്ട് സൈഡ് ശരിയാക്കി റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിലും ബാക്കിൽ നിന്നു വരുന്ന വണ്ടികൾ കാണാമോയെന്നു ശ്രദ്ധിക്കണം അതു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് റോ റോഡിലോട്ട് എന്താ റൈ എടുക്കുമ്പം എപ്പോഴും റൈറ്റ് ഇൻഡിക്കേറ്റർ നമ്മൾ ഇട്ടു വേണം ഫ്രണ്ടിലോട്ട് ബ ബ ബൈക്ക് എടുക്കാൻ വേണ്ടി ആ സമയത്ത് സൈഡിൽ കൂടി റൈറ്റ് മിററിൽ കൂടി നോക്കിക്കോളണം വേറെ വണ്ടികൾ വരുന്നോയെന്ന് പിന്നെ വീട്ടിൽ നിന്നാണ് പുറത്തോട്ട് ഇറങ്ങുന്നെങ്കിൽ ഹോൺ അടിച്ചു മാത്രമേ നമ്മള് പൊറത്തോട്ടെറങ്ങാ പാടുള്ളു അതുപോലെ എട റോഡ് കേറിവരുമ്പഴും നമ്മള് ഹോൺ അടിച്ച് ഒന്ന് സ്ലോ ചെയ്യണം റൈ റൈറ്റ്സൈ ഡും ലെഫ്റ്റ്സൈ ഡും നോക്കണം രണ്ടുസൈഡിലും വണ്ടി വണ്ടികൾ സ്പീഡി വരുന്നില്ല നമുക്ക് കേറിപ്പോകാൻ മെയിൻ റോഡിലോട്ട് കയറാൻ പറ്റുമോയെന്ന് ഉറപ്പാക്കിയിട്ടു മാത്രമേ കയറിപ്പോകാവുള്ളൂ അല്ലെങ്കിൽ അട് നേരെ എതിരെ വരുന്ന വ വണ്ടി വണ്ടി നമ്മളെ ഇടിച്ചിടുകയും നമുക്ക് ആക്സിഡൻറ്റ് പറ്റുകയും ചെയ്യും ഹെൽമെറ്റ് എപ്പോഴും മസ്റ്റായിട്ട് നമ്മൾ ഉപ തലയിൽ വ വെയ്ക്കണം പിന്നെ നമ്മളെടുക്കേണ്ട കാര്യങ്ങളെന്നുപറഞ്ഞാൽ വണ്ടിയിലെ എയർ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ ചെ പേപ്പർ കാണണം എ ന ആർ സി ബുക്കിൻ്റെ കോപ്പി കാണണം ഇൻഷുറൻസ് പേപ്പർ കാണണം ഇത്രയും നം നമ്മുടെ ലൈസൻസ് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൂടെ ക യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വ വണ്ടിയിൽ തന്നെ ഇട്ടേക്കേണ്ടത് അത്യാവശ്യമാണ്